ആ ചേട്ടാ ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് ധോണിയിൽ നിന്നാണ് വിളിക്കുന്നത് അപ്പം ഫുഡ് വേണമായിരുന്നു ആ നിങ്ങളുടെ ഫുഡിനെക്കുറിച്ച് വളരെ കേട്ടിട്ടുണ്ട് നല്ല ഭക്ഷണമാണെന്ന് അറിയാം ഇപ്പോൾ ആഹ് ആ നമുക്ക് ഒരു ഉച്ചത്തേക്ക് ഒരു ബിരിയാണി വേണം ബിരിയാണി റാവത്തർ ബിരിയാണി തന്നെ ആയിക്കോട്ടെ നല്ല മസാലയൊക്കെ ഇട്ട് റാവുത്തർ ബിരിയാണി വേണം പിന്നെ ചിക്കൻ ഫ്രൈ വെച്ചിട്ടുണ്ടാകണം എക്സ്ട്രാ പിന്നെ സലാഡ് വേണം എങ്ങനെയാണ് നമുക്ക് ഒരു ഉച്ചക്ക് പന്ത്രണ്ട് അരയ്ക്കും മുമ്പ് നമ്മുടെ സാധനം വീട്ടിലെത്തിക്കുകയും വേണം ഡെലിവറി ചെയ്യില്ലേ പന്ത്രണ്ടരയ്ക്ക് മുമ്പ് എത്തിക്കുമല്ലോ അല്ലേ എങ്ങനെയാണ് ഡെലിവറി ചാർജ് എങ്ങനെയാണ് കൂടുതൽ എക്സ്ട്രാ വരുമോ അതേല്ലേ അപ്പം നമുക്ക് ഡെലിവറി ചാർജൊക്കെ കുറച്ച് തരുമല്ലോ അല്ലേ ഞങ്ങളിപ്പോഴും നിങ്ങളുടെ കസ്റ്റമർ ആണ് അപ്പോൾ ഡെയിലി കസ്റ്റമർ ആയ സ്ഥിതിക്ക് നമുക്ക് ഡെലിവറി ചാർജ് കുറച്ച് തരുമോ ഓ താങ്ക് യൂ ചേട്ടാ വളരെ സന്തോഷം അപ്പോൾ പന്ത്രണ്ടരക്ക് മുമ്പ് എത്തില്ലേ ആ ഓക്കെ നമ്മൾ ക്യാഷ് പേ ചെയ്തോളും ഓക്കെ ഓക്കെ തേങ്ക് യൂ